പലർക്കും ഡോക്ടറുടെ അടുത്ത് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും പണമില്ലാത്തതു കൊണ്ടും സമയ ലാഭത്തിനു വേണ്ടിയും പിന്നെ മുറിവൈദ്യം അറിയാം എന്നുള്ളതു കൊണ്ടുമായിരിക്കാം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അത്യാവശ്യം പനിക്ക് പാരസെറ്റമോൾ കഴിച്ചാൽ മതിയെന്നും ജലദോഷത്തിന് സിട്രസും കഴിച്ചാൽ മതിയെന്നും കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്കൊക്കെ അറിയാം പക്ഷേ ഇതു വരുത്തി വെയ്ക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ് കാരണം പനി ഒരിക്കലും ഒരു രോഗമല്ല അതൊരു രോഗലക്ഷണമാണ് യഥാർത്ഥത്തിൽ തനിക്ക് എന്തു കൊണ്ടാണ് ഈ രോഗ ലക്ഷണമുണ്ടെന്ന് തിരിച്ചറിയാതെ മരുന്ന് കഴിക്കുന്ന വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി ഒന്നു കൂടി തകരാറിലാകുവാൻ ഇത് ഇടയാക്കുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ വേണ്ടി നാം ഒന്നിച്ചിരുന്നു പരിശ്രമിക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മയാണ് ഇത്തരം തെറ്റുകളിലേക്ക് നയിക്കുന്നത് ഗവൺമെൻറ്റാശുപത്രികളെല്ലാം വളരെ സൗജന്യമായ നിരക്കിലും ഗുണമേന്മയുള്ള മരുന്നുകളും ലഭ്യമാകുന്നുണ്ട് അതിനെ കുറിച്ച് ജനങ്ങൾക്ക് ഒന്നുകൂടി ബോധവൽക്കരണം നടത്തുകയാണെങ്കിൽ കുറെയധികം ആളുകൾ ഈ പ്രതിസന്ധിയിൽ വീഴാതെ ശരിയായ രീതിയിൽ മുന്നോട്ടു പോകുമെന്നാണ് തോന്നുന്നത് കൃത്രിമമായ മരുന്നുകൾ വിൽക്കുന്നവരുടെ കയ്യിൽ നിന്നും മരുന്നുകൾ വാങ്ങി പറ്റിക്കപ്പെടാനും ഒരു സാദ്ധ്യത ഇതിൻ്റെ മേലുണ്ട് അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളെ ഗൗരവമായി കണക്കാക്കേണ്ടതാണ് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മരുന്നു കൊടുക്കുക മരുന്ന് കൊടുക്കരുതെന്നുള്ള ഒരു കർശനമായ നിയമസംവിധാനം ഉണ്ടാകുന്നതും നല്ലതാണ്